ചിത്രരചനയ്ക്കായിട്ട് ഞാൻ കൂടുതലും ഷോപ്പിൽ പോയാണ് സാധനങ്ങൾ വാങ്ങിക്കാറ് കാരണം എനിക്ക് പെയിൻ്റും കാര്യങ്ങളും ക്യാൻവാസൊക്കെ ആണെങ്കിലും അതിൻ്റെ ടെക്സ്റ്ററും അതിൻ്റെ ബ്രഷാണെങ്കിലും ബ്രഷിൻ്റെ സ്ട്രോക്കും ബ്രഷിൻ്റെ ഹെയറും കാര്യങ്ങളുമൊക്കെ എനിക്ക് നേരിട്ട് കണ്ടു വാങ്ങിക്കുന്നതാണ് എനിക്ക് തൃപ്തി ഇനി ഇപ്പം ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെങ്കിൽ എനിക്ക് കണ്ണും പൂട്ടി ഓൺലൈനിൽ നിന്ന് ഞാൻ ഷോപ്പ് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ കൂടുതലും ആർട്ട് റിലേറ്റഡ് അതായത് പെയിൻ്റിങ്ങിനായിട്ടൊക്കെ മാത്രം ഈ ജുവാൻഡെക്കെ പോലെ പെയിൻ്റിങ്ങിനായിട്ട് മാത്രമുള്ള ഷോപ്പുകളുണ്ടല്ലോ അല്ലെങ്കിൽ ആർട്ട് അങ്ങനത്തെ ബേസ്റ്റ് മാത്രം സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളിൽ പോയാണ് ഞാൻ കൂടുതലും വാങ്ങിക്കാറുള്ളത് പെയിൻ്റിങ്ങിന് ഞാൻ എപ്പോഴും ഹൈ ബ്രാൻഡഡായിട്ടുള്ള ഹൈ എന്താണ് പറയുക ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസാണ് ചൂസ് ചെയ്യുക ബിക്കോസ് പെയിൻ്റ് ചെയ്യാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം അതിൻ്റെ എല്ലാ സ്ട്രോക്സും അത് കറക്റ്റ് ആയിട്ട് കറക്റ്റ് ഇതിൽ കളറാണെങ്കിലും ഞാൻ യൂസ് ഞാൻ എടുക്കുന്ന എമൗണ്ടിലുള്ള കളറ് അത് മിക്സ്സ് ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കളറ് തന്നെ വരണം അതിൻ്റെ ടെക്സ്ചർ മാറാൻ പാടില്ല പെട്ടെന്ന് നശിച്ചു പോകുന്ന കളർ ആവരുത് ഇപ്പോൾ ഓയിൽ പെയിൻ്റുകളും അക്രിലിക്കുകളുമൊക്കെ ആണെങ്കിലും കുറച്ച് നാൾ നിൽക്കണം ക്യാൻവാസിൻ്റെ ടെക്സ്റ്ററൊക്കെ നമ്മൾ കളർ സ്പ്രെഡാവുന്നതിനൊക്കെ ബാധിക്കും നല്ല രീതി നല്ല ക്യാൻവാസ് ക്ലോത്തുകൾ വാങ്ങിക്കുക അതായത് ഈ മെഷീൻ മെയ്ഡ് അല്ലാത്ത നല്ല ക്യാൻവാസ് ക്ലോത്തുകളൊക്കെ വാങ്ങിക്കുക അപ്പം ഞാൻ കൂടുതലും ഷോപ്പ് ബോട്ടാണ് കൂടുതലും ഞാൻ കട കടയിൽ പോയാണ് പെയിൻ്റിങ്ങിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത് അതാണ് എനിക്ക് കുറച്ചും കൂടി തൃപ്തി തരാറ് അപ്പോൾ എനിക്ക് എല്ലാം ചെക്ക് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ചിലപ്പോൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന മെറ്റീരിയലൊക്കെ ചൂസ് ചെയ്ത് വാങ്ങിക്കാമല്ലോ സോ പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ബ്രാൻഡിൻ്റെ മെറ്റീരിയലുകൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ലാത്ത സാധനങ്ങൾ അത് നമ്മൾ റിവ്യൂ ഒക്കെ നോക്കി നമ്മൾ നാട്ടിൽ അവൈലബിൾ അല്ലാത്തത് ഓൺലൈനിൽ കിട്ടുന്നതുമായിട്ടുള്ള ആർട്ട് മെറ്റീരിയലുകൾ പെയിൻ്റാണെങ്കിലും പെയിൻ്റ് വേസ്റ്റ് ബേസാണെങ്കിലും ഒക്കെയാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് ചൂസ് ചെയ്യാറുണ്ട് ഇത് രണ്ടും ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് വാങ്ങിക്കാൻ വേറെ സോഴ്സ് ഒന്നും അവൈലബിൾ അല്ല